ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗ സമയവും ഞാൻ പാചകത്തിന് ആയിട്ടെന്യാ ചിലവാക്കുന്നത് ആ രാവിലെ രാവിലെ പാചകത്തിന് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് കുറച്ച് സമയം ഇടയ്ക്ക് ഉണ്ടാകും അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ വൈകുന്നേരമാകുമ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കും പാചകത്തിന് ആയിട്ടു തന്നെയാണ് എൻ്റെ കൂടുതൽ സമയവും ഞാൻ ചിലവാക്കുന്നത് എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം സ്കൂളിലേക്ക് കൊടുത്തു വിടാനും എന്തെങ്കിലും സ്നാക്സ് പോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുകയോ വാങ്ങിയത് കൊടുക്കുകയോ അതെന്തെങ്കിലും ചെയ്യും പിന്നെ നാം പിന്നെ നമ്മൾ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അതെല്ലാം അത്രയും സമയം അടുക്കളയിൽ ചിലവാക്കി നമ്മൾ അത് ചെയ്യുന്നത് പിന്നെ രാത്രിയിലേക്കുള്ള ഭക്ഷണം അത് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ സമയം കൂടുതലും ഈ അടുക്കളയിലും പാചകത്തിനും തന്നെയാണ് ഞാൻ ചിലവാക്കുന്നത്

സാധാരണ ഒരു വീട്ടിലിണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം അതൊന്നും അത്ര സങ്കീർണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം ചോറ് വെക്കുന്നതായാലും കറി രാവിലത്തെ ചായേൻ്റെ കടികൾ അതൊന്നും ഒരു സങ്കീർണ്ണത ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ എങ്കിൽ ഞാൻ ഫോണിൽ നോക്കിയിട്ട് ഒരിക്കൽ ഒരു കേക്ക് ഉണ്ടാക്കാൻ നോക്കീനു ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് മോൻ പറഞ്ഞിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ നോക്കി പക്ഷേ എനിക്കത് എൻ്റെ ഒരുപാട് സമയവും പോയി എനിക്ക് ആ കേക്ക് നന്നായിട്ട് കിട്ടിയിട്ടുമില്ല മൈദമാവിൽ മുട്ട ഉടച്ച് കുഴക്കുക അതെല്ലാം ഫോണിൽ പറയുന്നത് കേൾക്കുമ്പോൾ ഈസി ആയിട്ടാ തോന്നീന് പക്ഷേല് ഞാൻ അത് ചെയ്തു അത് നമുക്ക് ഈ ഓവനും കാര്യങ്ങളും ഒന്നുമില്ല അത് ഈ ഉപ്പിൻ്റെ അകത്ത് വേച്ചിട്ട് ഒരു പാത്രത്തിലാക്കി ഉപ്പ് അടുപ്പത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഇത് വേകാൻ വേണ്ടിയിട്ട് വെച്ച് അങ്ങനെ എല്ലാമാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത് പിന്നെ അത് അതിനുശേഷം അത് അതിൽ ക്രീം ആക്കി ക്രീം ഞാൻ ഈ ഫോണിൽ പറയുന്നത് കേട്ട് പഞ്ചസാരയും വെണ്ണയും എല്ലാം കൂടി ഇട്ട് സ്പൂൺ കൊണ്ട് കലക്കി പക്ഷേ എൻ്റേത് ക്രീം ഒന്നും ആയിട്ടില്ല വെറും പഞ്ചസാര വെള്ളം ആയത് അത് ഞാൻ എങ്ങനെയെല്ലോ ഒരുവിധത്തില് അയിൻ്റെ മുകളിൽ വെറുതെ ഒന്നു തേച്ചു കൊടുക്കാ ചെയ്തേ അത് എനിക്ക് കേക്കിൻ്റെ എൻ്റെ ഏറ്റവും വലിയ സങ്കീർണതയായിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയത് എനിക്ക് ഈ കേക്ക് കേക്കാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത് ഞാൻ ആദ്യമായിട്ട് ആക്കുന്നതാന്ന് എനിക്ക് അത് അത്ര പരിചയമില്ലാത്ത കാര്യവും ആന്ന് അപ്പോൾ ഈ കേക്ക് അവസാനം ഇത് ഈ പഞ്ചസാര ലായനി പോലത്തത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒരുവിധം ഒരു എന്തോ ഒരു ഷേപ്പ് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു അപ്പം കുട്ടികളും പറഞ്ഞു ഇത് കേക്കല്ല അമ്മ ഉണ്ടാക്കിയത് ഇത് കേക്കല്ല അതാണ് അവർക്കും തോന്നിയിട്ടുള്ളത് ഇത് ഇതാണ് എനിക്കൊരു ഒരു സങ്കീർണതയായിട്ടുള്ള ഒരു പാചകമായിട്ട് തോന്നിയിട്ടുള്ളത്